എടാ പിന്നെ ഞാൻ ക്യാമറ ഫ്ലിപ്പ്ന്ന് ഓർഡറെ ചെയ്ത ഒരു നാൽപ്പത് അൻപതിനുള്ളിൽ ആയിന് അതെ കനോ്ന്റെ എക്സ് എൽ ആർ പക്ഷേ കൊടുത്ത പൈസക്ക് മുതൽ ക്യാമറയാണ് എന്താ കിടിലം പെർഫോമൻസ് അറിയാമോ ഫോട്ടോസ് ഒക്കെ നല്ല അടിപൊളി ഫോട്ടോസ് നമ്മൾ ഇപ്പം ഏത് അതിൽ ഏത് ഓപ്ഷനിലിട്ട് ഫോട്ടോസ് എടുത്താലും നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും ഇപ്പം നൈറ്റായാലും മോർണിംഗ ആയാലും ഈവനിംഗ് ആയാലും ഈ സമയമെടുത്താലും നമുക്ക് വിചാരിച്ച മാതിരി വിചാരിച്ച ഫോട്ടോസ് കിട്ടും അതേമാതിരി വീഡിയോസിൻ്റെ കാര്യം ഒരു രസം എന്നാൽ രക്ഷയില്ല പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി വിചാരിച്ച സാധനമായിട്ട് അത് കിട്ടുകയും അതേമാതിരി മറ്റേ സ്പലിറ്റ് ഫോട്ടോ അതേമാതിരി റണ്ണിംഗങ് ഷോട്ട് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ സ്പോർട്സ് മീറ്റിലൊക്കെ സ്പോർട്സിന്റെ റണ്ണിങ് ഷോട്ട് ഒക്കെ എടുക്കുമല്ലോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പറഞ്ഞാൽ കറക്റ്റ് കിട്ടും വിചാരിച്ച മാതിരി ആ റണ്ണിങ് ഷോട്ട് ഒക്കെ ഏതാണ് കിടിലം പെർഫോമൻസ്റും അടിപൊളി ക്യാമറ നയൻ വൺ എക്സ് എൽ ആറ് ഓക്കേ താങ്ക് യൂ